സാഹിത്യം കല കവിത എന്നീ വിഷയങ്ങൾ നമ്മള് മുകളിൽ പറയുമ്പോൾ മലയാള ഭാഷയില് കൂടുതലായിട്ടും ഇങ്ങനത്തെ വ്യാ കൂ കൂടുതലും കലാ ഇപ്പോൾ എന്താ പറയുക സിനിമാ മേഖല അല്ലെങ്കിൽ പിന്നെയീ പാട്ടുകള് എഴുത്ത് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മള് കലാപരമായിട്ടു നമ്മള് കൂടുതലായിട്ടും പിന്നെ നൃത്തങ്ങള് അതിനൊക്ക നമ്മുടെ മലയാളം പാട്ടു തന്നെയാണ് മെയിനായിട്ടു ഇപ്പോൾ എന്താ പറയുക ഈ സിനിമ പാട്ടുകള് നാടന് പാട്ടുകള് ഈ പിന്നെ അങ്ങനത്തെ കവിതകള് എഴുതാന് അങ്ങനത്തെ കാര്യങ്ങള്ക്കൊക്കെ മലയാളം ഭാഷയെ നല്ല രീതിയില് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കവിതകള് ഇപ്പോൾ നമ്മളുടെ നാട്ടില് അത്യാവശ്യം പേരെടുത്ത അല്ലെങ്കിൽ കുറെ അധികം ക കവയത്രികളും കവികളും നമ്മുടെ നാട്ടില് ഇഷ്ടം പോലെയുണ്ട് ഇപ്പോൾ പേര് കേട്ട എന്താ പറയുക കുഞ്ചന് നമ്പ്യാര് പിന്നെ ചെറുശ്ശേരി ഓ എന് വി കുറുപ്പ് അങ്ങനെ കുറേ ആള്ക്കാർ അവരിപ്പോൾ ഇതിലേക്ക് പാട്ടും കാര്യങ്ങളൊക്കെ എഴുതും കവിത എഴുതും കലാസൃഷ്ടി കഥ എഴുതുക അങ്ങനെ സാഹിത്യ പരമായിട്ടു നോക്കുകയാണെന്നു പറയുമ്പോൾ കാവ്യങ്ങൾ രചിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ പിന്നെ നമ്മുടെ എന്താ പറയുക ശ്രീമൂലം തിരുനാൾ അങ്ങനെ പല പല ആൾക്കാരും പഴയ ആൾക്കാരായാലും പുതിയ ആൾക്കാരായാലും ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അങ്ങനത്തെ ആൾക്കാർ അങ്ങനെ നമ്മുടെ മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കാനും അതിലൂടെ അവർ അവരുടെ സര്ഗാത്മകമായ കഴിവ് പുറത്തു കൊണ്ടുവരാനും മലയാളഭാഷയെ നല്ല രീതിയില് ഉപയോഗിക്കുന്നുണ്ട്